എൻ്റെ വീട്ടില് ഒരു കുക്കറില്ലായിരുന്നു ഇഡ്ഡലി കുക്കര് അപ്പോള് ഞാനൊരിഡലി കുക്കര് വാങ്ങിച്ചു അതു പെട്ടന്നിതിനകത്ത് ഇഡലി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എനിക്ക് സ്റ്റീലിൻ്റെ കുക്കറായിരുന്നു ഇല്ലായിരുന്നു എനിക്കു സാധാരണ അടുപ്പില് വയ്ക്കുന്ന മോഡലുള്ളൊരു ഇഡ്ഡലി കുക്കർ ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നു അപ്പോള് ഞാനതിനു വേണ്ടിയിട്ട് എനിക്ക് സ്റ്റൗവ്വില് വയ്ക്കാൻ പാകത്തന് ഒരു സ്റ്റീലിൻ്റെ ഇഡ്ഡലി ആ കുക്കര് വാങ്ങിച്ചു അത് ഒരു സമയം തന്നെ മൂന്ന് മൂന്ന് അടപ്പുണ്ട് മൂന്നു തട്ടുണ്ടായിരുന്നു മൂന്നു തട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള സാധനങ്ങള് ഉണ്ടായിരുന്നു അതുകൊണ്ടു നല്ല രീതിയില് വാങ്ങിക്കാൻ അതു നല്ല രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ അത് അടുപ്പില്വച്ചു വാങ്ങി വച്ചു പിന്നീട് കുറേ സമയം കഴിഞ്ഞ് അതോ തണുത്തത് ഇപ്പോള് മൂന്നു പ്രാവശ്യം മൂന്നും തട്ടുള്ളതുകൊണ്ട് പെട്ടെന്നുപെട്ടെന്ന് ഉണ്ടാക്കി എളുപ്പമെന്റെ ജോലി ഭാരം വളരെ എളുപ്പമായി അതു ഞാൻ വാങ്ങിയത് എനിക്കൊരു മൈക്രോഫിനാൻസിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ടു കിട്ടിയതാണ് അതു നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നല്ല രീതിയിൽ എനിക്കത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതെനിക്കു വളരെയധികം ഇഷ്ടപ്പെട്ടു സാധാരണ അടുപ്പില്വച്ചു കരിയൊന്നും പറ്റാതെ നല്ല രീതിയില് സ്റ്റൗവില്വച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണത് എനിക്കതു വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല ഒരു എക്സ്പീരിയൻസായിരുന്നു അത് എനിക്കതായിട്ടു മേടിച്ചു നല്ല ഇതായിട്ട് അല്ലെങ്കില് സാധാരണ കരി എല്ലാം നമ്മളെ കയ്യല്ലെല്ലാം പറ്റുന്നപ്പോള്ഡ സ്റ്റീലായതുകൊണ്ടും അതു നമുക്ക് ഒരു പത്ത് മിനിറ്റ് പോലും നമുക്കത് അതു സ്റ്റൗവില് വയ്ക്കേണ്ട കാര്യമില്ല അതിനു മുമ്പുതന്നെ നമുക്കത് ആ എടുക്കാം അപ്പോഴത്തനും അത് പാകമാകും അങ്ങനെയുള്ള ഒരു പാത്രമായിരുന്നു അത് അതാണ് എനിക്ക് അതെനിക്കു വളരെ ഇഷ്ടപ്പെട്ട ഞാനെന്റെ കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തു ഇതു വാങ്ങിക്കോട്ട് ഇതു വാങ്ങിച്ചാൽ നല്ലതാണ് നമുക്കു നമ്മുടെ കയ്യില് അഴുക്കൊന്നും പറ്റില്ല ഗ്യാസിന് ഉപയോഗം വളരെ കുറയും സ്റ്റീലായതുകൊണ്ട് നമുക്കധികം ചീത്തയായി പോകുന്നുമില്ല